മൃഗങ്ങൾക്ക് ബാധിക്കുന്ന രോഗമാണ് കുളമ്പു രോഗം പിന്നെ അകിട് വീക്കം കുളമ്പു രോഗം തടയാന് നമ്മള് ആലകളൊക്കെ വൃത്തിയായി സൂക്ഷിക്കുക പശുക്കൾക്കാണെങ്കില് നാടിനാണെങ്കിലും എന്താ പറയുക കൂടുകളൊക്ക നല്ല വൃത്തിയായും ദിവസവും അഴുക്കുകളൊക്കെ പോക്കിയും അണുനാശിനി വരുത്തി ഒക്കെ ആണ് കുളമ്പു രോഗത്തിൽ നിന്നും നമുക്ക് സംരക്ഷിക്കാൻ പറ്റൂ കുളമ്പു രോഗത്തിനായിട്ടുള്ള കുത്തിവെപ്പുകള് എടുക്കുകയും എല്ലാ പശുക്കൾക്കും കുത്തിവെപ്പ് എടുക്കുക പിന്നെ പിന്നെ അവരെ കുളിപ്പിക്കുക അങ്ങനെ ഒക്കെ ചെയ്താല് കുളമ്പു രോഗത്തിൽ നിന്ന് നിന്ന് സംരക്ഷിക്കുക അകിട് വീക്കം എന്ന് വെച്ചാൽ പിന്നെ പശുക്കൾക്ക് പ്രസവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നതാണ് അതിനു നല്ലവണ്ണം പശുക്കളെ നല്ലവണ്ണം കറക്കുക നല്ലവണ്ണം അവിട്ടിൽ അകിട്ടില് അകിടുകളില് നല്ലവണ്ണം വെള്ളം അടിച്ച് ഇതാക്കുക അപ്പം പിന്നെ ആലകളൊക്കെ വൃത്തിയാക്കുക അണുനാശിനി വരുത്തുക അങ്ങനെ ചെയ്താല് ഇങ്ങനെ മൃഗങ്ങൾക്ക് ഒരുവിധം സം രോഗത്തിൽ നിന്നും സംരക്ഷിക്കാൻ പറ്റും